ആറ് മൂന്ന് രണ്ടായിരത്തി മൂന്ന് ഏഴ് ആറ് രണ്ടായിരത്തി നാല് എട്ട് ഒൻപത് രണ്ടായിരത്തി അഞ്ച് ഒൻപത് പത്ത് രണ്ടായിരത്തി ഏഴ് പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി എട്ട്